വ്യാപാരത്തിനായാലും വാണിജ്യത്തിനായാലും അത് നമ്മൾ പരസ്യങ്ങള് മലയാളം വഴിയെ കേൾക്കുമ്പോൾ മലയാളത്തിലുള്ള പരസ്യങ്ങള് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് ആ സാധനം വാങ്ങിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക ടെന്ണ്ടന്സി ഉണ്ടാവുകേം ആ പരസ്യങ്ങളില് കാണുന്ന ഹാ നമുക്ക് അത് അത് മേടിച്ചാല് ഇന്നത് നമുക്ക് ഓഫർ കിട്ടും അല്ലെങ്കിൽ അതുപയോഗിച്ചാല് കൂടുതൽ നമ്മൾ സുന്ദരിയാകും അല്ലെങ്കിൽ മുടി കറുപ്പിക്കാനായിട്ട് ഇന്നത് ഉപയോഗിച്ചാൽ അഞ്ച് മിനിറ്റുകൊണ്ട് നമുക്ക് മുടി കറുപ്പിക്കാന് സാധിക്കും ഇങ്ങനൊക്കെയുള്ള ഓരോ പരസ്യങ്ങള് കേൾക്കുമ്പം നമ്മളതിലേക്ക് കൂടുതല് ആകര്ഷിതരായിട്ട് അതുമായി അത് ആ ഇതിന്റെ പുറകെ നമ്മൾ പോവുകേം അത് നമ്മൾ അങ്ങനെ ആ സമ്പത്ത് അങ്ങനെയാണ് നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ആ സമ്പദ് വ്യവസ്ഥ അങ്ങനെയാണ് നമ്മൾ മലയാള ഭാഷ നമ്മൾ ആകുമ്പം നമുക്കത് കൂടുതൽ പെട്ടന്ന് നമുക്കത് മനസ്സിലാകേം നമ്മളത് പിന്നെ അതിനെ അനുകരിക്കാന് നോക്ക്യേം ആ ഇതിന്റെ പുറകെ നമ്മൾ പോവുകേം ചെയ്യുന്നു അങ്ങനെ വളരെ പ്രയോജനപരമായിട്ട് നമുക്കത് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഏത് സാധനങ്ങള് ഗുണമേന്മ കുറവുള്ളതാണേലും അതാണ് ഏറ്റോം ഗുണമുള്ളത് നിങ്ങളിത് കഴിച്ചാല് നിങ്ങൾ നിങ്ങളുടെ പ്രായം കുറഞ്ഞ് പോകും കുറഞ്ഞുവരും നിങ്ങൾക്ക് പത്തുവയസ് കൂടെ കുറഞ്ഞു കിട്ടുമെന്ന് പറയുമ്പം നമ്മളാ ഇതില് കേൾക്കുമ്പോഴത്തെ നമ്മളതിന്റെ പുറകെ തന്നെ പോവുകേം ആ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കേം ചെയ്യും അങ്ങനെ ആ മലയാള ഭാഷ നമുക്ക് നല്ലോണം അറിയാവുന്നത് കൊണ്ട് ആ ആസ് എ ഇംഗ്ലീഷാണെങ്കില് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും കുറച്ച് നമുക്ക് മനസ്സിലാകാതെ വരും അപ്പോൾ നമ്മൾ പിന്നെ അതിനെ അത്രേം പ്രാധാന്യം കൊടുക്കേല സൊ മലയാളം ആകുമ്പോൾ നമ്മളതിന്റെ നമ്മുടെ ഭാഷേക്കൂടെ നമ്മളത് കേൾക്കുമ്പം നമുക്കതിനോട് കൂടുതൽ ഇന്ട്രെസ്റ്റ് വരികേം ആ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കൂടുതൽ പരിശ്രമിക്കും അങ്ങനെ ആ ആ അങ്ങനെ നമ്മളോരോ പരസ്യത്തിന്റേം പുറകെ പോകുന്നത് ഈ മലയാളമാകുന്ന ഭാഷേക്കൂടി നമുക്കത് മനസ്സിലാക്കി തരുമ്പോഴാണ് അങ്ങനെ ഇതുകൊണ്ട് ആ പരസ്യത്തിനനുസരിച്ചാണ് നമ്മുടെ സാധനങ്ങൾ കൂടുതൽ വിറ്റഴിച്ച് പോകുന്നത് പരസ്യം കാണുമ്പം നമ്മൾ ഒരാളോട് പറയും മറ്റൊരാളോട് പറയും അങ്ങനെ അവരുമിത് പിന്നെ കേൾക്കും കേട്ട് കഴിയുമ്പം അവര്ക്കും അതിനോട് കൂടുതൽ ഇന്ട്രെസ്റ്റ് തോന്നും അങ്ങനെ അവരത് വാങ്ങിക്കാനും അത് വിറ്റഴിക്കാനായിട്ടൊക്കെ നമുക്കത് കൂടുതൽ ഉപകാരം ചെയ്യും അങ്ങനെ അത് പിന്നെ ഈ പരസ്യങ്ങളുടെ ആകെത്തൊകയാണ് നമുക്ക് വരുന്ന ഒരു പ്രത്യേക ഗുണം അങ്ങനെ അതുപോലെ തന്നെ പരസ്യം പരസ്യങ്ങള് വഴിയും ഓരോരു ഓരോരുത്തരും അതിന്റേതായിട്ടുള്ള ഗുണങ്ങളും ഗുണഗണങ്ങളും ഓരോ സാധനത്തിനും ഇന്നയിന്ന സാനങ്ങളടങ്ങിയിരിക്കുന്നു ഇന്നയിന്ന സാധനങ്ങൾ ഇത് ഉപയോഗിച്ചാല് നിങ്ങൾക്ക് ഇന്നയിന്ന പ്രയോജനങ്ങൾ വരും എന്ന് അവർ പറഞ്ഞു തരികേം അത് നമ്മൾ മനസ്സിലാക്കേം ചെയ്യുന്നു